ഹലോ ആരായിരുന്നു സംസാരിക്കുന്നത് ആ അതെ അതെ ആരായിരുന്നു സംസാരിക്കുന്നത് ആ ആ ഓക്കെ ഓക്കെ മാം ഞങ്ങൾ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കേണ്ടത് ആ ഓക്കെ ഏതെങ്കിലും ബ്രാൻഡ് പ്രിഫർ ചെയ്യുന്നുണ്ടോ ആ ഓക്കെ ഓക്കെ മാം ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിങ്ങ് ആയിട്ടുള്ളത് സാംസങ്ങിന്റെ അറിയാമല്ലോ സാംസങ്ങിന്റെ ഒരു അറിയില്ലേ സാംസങ്ങ് മെട്രോ എന്നല്ലേ അൽത്ത അൾട്രാ പ്രോ ആണ് ദെൻ റെഡ്മി ഇലവൻ പ്രോ റിയൽമി അങ്ങനെ കുറച്ച് കമ്പനീസ് ഇറങ്ങുന്നുണ്ട് അതിനെല്ലാം നല്ല ജി ബിയും ഒക്കെ ഉള്ളതാണ് ഇരുനൂറ്റി അമ്പത്താറ് ജി ബി ഒക്കെ പ്രിഫർ ചെയ്യുന്നുണ്ട് ഹൈ ക്വാളിറ്റി ക്യാമറ ആണ് രണ്ട് ലെൻസ് ഒക്കെ വരുന്ന ക്യാമറ ഒക്കെ ഉണ്ട് മാമിന്റെ റേറ്റ് എത്രയാണ് പതിനയ്യായിരത്തിൽ എബോവ് പോവും നമുക്കൊരു ഈ പറഞ്ഞ കണക്ക് സാംസങ്ങ് അൾട്ര പത്തിൽ കുറഞ്ഞത് പറയുമ്പം മാം സ് ഇത് കുറയും സ്പേസ് കുറയും നമുക്ക് പത്തിൽ കുറയുമ്പം സ്പേസ് ഇരുനൂറ്റി അമ്പത്താറൊന്നും വരത്തില്ല നൂറ്റിഇരുപത്തെട്ട് അറുപത് ജി ബി അങ്ങനെയൊക്കെ നമുക്ക് കിട്ടുള്ളൂ പിന്നെ അതുപോലെ തന്നെ ക്യാമറയ്ക്കൊന്നും ക്വാളിറ്റിയും കാണില്ല ഭയങ്കര പുവർ ആയിരിക്കും ആ ഇരുപത് ഓക്കെ ഇരുപതിനകത്ത് നിൽക്കണം അല്ലേ

ആ ഓക്കെ ഓക്കെ എന്നാൽ സാംസങ്ങ് ആണെങ്കിൽ മാം ഒരു ട്വൻറി ത്രീ ആകുമായിരിക്കും ട്വൻറി ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരും അതാണതിന്റെ റേറ്റ് പക്ഷേ മാം നല്ല ഫോൺ ആണ് നല്ല ക്വാളിറ്റിയും ഒക്കെ ഉണ്ട് ഭയങ്കര നല്ല ഫോൺ ആണ് ആ ഓ മോം അത് മൊ മാമിന്റെ സൗകര്യം പോലെ നമ്മൾ വേണമെങ്കിൽ ഡെലിവറി ചെയ്യുന്നതായിരിക്കും ആ ഓക്കെ ആ ഓക്കെ മാം അ ജി പേ ചെയ്താൽ മതി ഞാൻ അല്ലെങ്കിൽ അക്കൗണ്ട് നമ്പർ സെൻഡ് ചെയ്യാം പൊ അക്കൗണ്ടിലോട്ട് അയച്ചാലും മതി ആ ആ മാം വാറണ്ടി ഇല്ല ഗ്യാരണ്ടി ഉണ്ട് വൺ ഇയർ ആ മാം അങ്ങനെയേ നമുക്കിപ്പം പ്രൊവൈഡ് ചെയ്യാൻ പറ്റുളളൂ ഇലക്ട്രോണിക് ഡിവൈസസ് അല്ലേ യാ മാം നമ്മൾ ഇപ്പം അങ്ങനെയാണ് എല്ലാ കമ്പനീസും പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ അതുകൊണ്ട് അതുകൊണ്ടാണ് ആ ശെരി ശെരി